ഹലോ ചോപ്സിയല്ലേ അപ്പോള് ഒരു പരസ്യം കണ്ടായിരുന്നു അവിടെ ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു പരസ്യം കണ്ടായിരുന്നു അപ്പോള് അതിനുവേണ്ടി വിളിച്ചതാണ് ഒരു റെസ് അവടെ ഒരു മേഷൂ നേരത്തെ ഒന്ന് ബുക്കെയ്യാനായിട്ട് വിളിച്ചതാണ് അപ്പോള് ആ അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് പറയാനാണ് ആ ഞങ്ങള്ക്ക് ഈ മാസം ഒരു ഇരുപതാം തീയതി വരാനായിട്ടാണ് ഞങ്ങള് ഇപ്പോള് ഞങ്ങളൊരു എട്ട് പേരൊക്കെ കാണും ഞങ്ങളുടെ ഫാമിലി ആ ഫാമിലിയായിട്ട് വരാനാണ് ആ അപ്പോള് അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് പറയുമായിരുന്നെങ്കില് എത്ര ഓഫര് ഓഫറുണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യായിരം ആണോ ഓ അയ്യായിരം ആയിരുന്നത് കുറച്ച് തരാമെന്നോ മുവായിരം ആക്കാം ആ ഓക്കേ ഓക്കേ അപ്പോള് അവിടത്തെ ഫുഡൊക്കെ എങ്ങനായിരിക്കും അന്ന് ഞങ്ങളൊരു ആ ഞങ്ങള് വൈകിട്ടൊക്കെ വരാനാണ് വൈകിട്ട് വരാനായിട്ടാണ് ആ വൈകിട്ട് വരുമ്പോള് ഷവർമ്മയൊക്കെ അല്ലെങ്കില് അല്ലാതെ സ്പെഷ്യൽ എന്താ അവിടെ ഉള്ളത്

ഓ സ്പെഷ്യലായിട്ട് ആ ഓക്കേ ഞങ്ങള്ക്കാണെങ്കില് ഇപ്പോള് അവരെല്ലാം സ്റ്റേറ്റ്സ്സിന്നൊക്കെ വരുവാണ് അപ്പോള് ഞങ്ങള്ക്ക് കുറച്ചുകൂടെ നാടൻ ഫുഡൊക്കെ വേണമെന്നായിരുന്നു അത് സ്പെഷ്യലായിട്ട് അങ്ങനൊക്കെ ഉണ്ടാക്കുമോ പറഞ്ഞാല് അതിന് സ്പെഷ്യൽ ചാർജാണോ ഓ അങ്ങനെയാണല്ലേ അപ്പോള് ആ അതെ ആ സ്പെഷലായിട്ട് അത് കുഴപ്പമില്ല അത് സ്പെഷ്യൽ ചാർജൊക്കെ തന്നോളാം അതിനൊന്നും കുഴപ്പമില്ല ആ ഇല്ല ഇല്ല ഇല്ല ഞങ്ങൾക്ക് എട്ട് പേർക്കും വേണമായിരുന്നു കേട്ടോ അത് ആ ഇല്ല സ്പെഷ്യൽ ചാർജ് വരുന്നതിനൊന്നും കുഴപ്പമില്ല അപ്പോള് ഇരുപതാം തിയ്യതി ഞങ്ങളെവല്ലാരുംകൂടെ അങ്ങോട്ട് വരാം